എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഏറ്റവും കൂടുതല് എൻ്റെ സമയം ചിലവഴിക്കുന്നത് എൻ്റെ കുടുംബത്തോടൊപ്പം ആണ് കൂടുതലും എൻ്റെ ഭർത്താവിനോടും എൻ്റെ കുഞ്ഞിനോടും കൂടെ ആണ് എൻ്റെ എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും ഞാൻ പങ്കുവെക്കുന്നതും അവരോട് തന്നെയാണ് അവര് കൂടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം സന്തോഷം സമാധാനം എനിക്ക് വേറെ എവിടെന്നും കിട്ടുന്നില്ല അവരുള്ള ലോകം അതാണ് എൻ്റെ എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഏറ്റവും വലിയ ലോകം അവരെ പിരിഞ്ഞിരിക്കാനോ അവരോടൊന്ന് സംസാരിക്കാതെ ഇരിക്കാനോ എനിക്ക് ഇന്നേവരെ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ ആണ് സുഹൃത്തുക്കളും ഏറ്റവും നല്ല കുറച്ച് സുഹൃത്തുക്കൾ മാത്രേ എനിക്ക് ഉള്ളു അത് വളരെ മനോഹരമായ ബന്ധമായിട്ട് എന്നും കാത്തുസൂക്ഷിച്ച് കൊണ്ടുപോകുന്നുണ്ട് എവിടെ ആണെങ്കിലും എന്താവശ്യത്തിനാണെങ്കിലും എപ്പോ വിളിച്ചാലും ഓടി വരുന്ന ഒരുപാട് കുറച്ച് നല്ല സുഹൃത്തുക്കൾ എന്നും എനിക്കൊണ്ട് എപ്പളും മുമ്പന്തിയിൽ നിൽക്കുന്നത് എൻ്റെ കുടുംബം തന്നെ ആണ് അവിടെ ആണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷവതി ആയിരിക്കുന്നത്